ഒരു നവജാത ശിശുവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു വൃത്തിയുള്ള അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അവർക്ക് കൂടുതലായിട്ടും വൃത്തിഹീനം ആയിട്ടുള്ള അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള അസുഖവും കാര്യങ്ങളും ഒക്കെ വരാന് വേണ്ടീട്ട് സാധ്യമാകും അപ്പം നമ്മൾ നല്ല രീതിയിൽ എപ്പോഴും വൃത്തിയായിട്ട് കൊണ്ടു നടക്കേണ്ടി വരും അപ്പം അത് നമ്മൾക്ക് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതിനെ നമ്മൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കുന്നത് എന്ന് വച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇപ്പം ഒരു കുട്ടി കിടക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അപ്പം ഇടയ്ക്കിടയ്ക്ക് ബെഡ് ഷീറ്റ് കാര്യങ്ങളൊക്കെ കഴുകുക എന്താ പറയുക അത് നല്ല രീതിയില് കുടയുക അപ്പം അവിടെ നമ്മൾ പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടിക്ക് അതായത് എന്തെങ്കിലും ഇന്ഫക്ഷനോ കാര്യങ്ങളൊക്കെ വരാന് വേണ്ടീട്ട് സാധ്യമാകും പിന്നേയെന്നു പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കിടത്തുന്ന തൊട്ടിൽ നമ്മൾ കുട്ടിക്ക് ഇട്ടുകൊടുക്കുന്ന ഡ്രസ്സ് കാര്യങ്ങൾ ഇപ്പം നമ്മൾ കടയിൽനിന്ന് ഒരു ഡ്രസ്സ് വാങ്ങി കഴിഞ്ഞാല് അത് വാഷ് ചെയ്തിട്ട് മാത്രം കുട്ടിക്ക് ഇട്ട് കൊടുക്കുക അപ്പം അത് അവിടുന്ന് ഒക്കെ അത് പല രീതിയിലുള്ള ആള്ക്കാരുടെ അടുത്ത് നിന്നൊക്കെ വരുന്ന ഡ്രെസ്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പം നമ്മളത് കഴുകി വൃത്തിയായിട്ടു കഴുകിയതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങള് ഒക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കുട്ടിക്ക് വേറെ അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാന് വേണ്ടീട്ട് ചെയ്യാന് പറ്റും